നമ്മുടെ ഗ്രാമത്തിൽ ഭജന ഗ്രൂപ്പുള്ളതായിട്ട് നമുക്കറിയത്തില്ല എനിക്ക് തോന്നുന്നു അമ്പലങ്ങളിലും മറ്റും ഭജനഗ്രൂപ്പുണ്ടെന്ന് തോന്നുന്നു അവർ അവരുടെ അമ്പലങ്ങളിൽ തന്നെ ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേകം കെട്ടിടങ്ങളുണ്ട് അപ്പോൾ അവരവിടെ അവരുടെ സംഗീതോപകരണം എന്ന് പറയുന്ന അവർ തബല മൃദംഗം വയലിന് ഗിത്താറ് സോറി ഗിത്താറല്ല വയലിന് തമ്പുരു അങ്ങനെയൊക്കെ ഹാർമോണിയം ഇതൊക്കെ ഉപയോഗിച്ചാണ് അവർ ഭജനയ്ക്ക് വേണ്ടി പോവുന്നതും അവർക്ക് വേണ്ട പ്രാക്റ്റിസ് നടത്തുന്നതും അവർ അമ്പലങ്ങളിലൂടെയും മറ്റും പല അമ്പലങ്ങളിലൂടെ അവർക്ക് അത് ക്ഷണം കിട്ടുന്നതിനനുസരിച്ച് അവർ അങ്ങനെയാണ് പോകുന്നത്